ഹലോ ആ ആ അക്ഷയയാണ് ആ അ പെൻഷൻ പെൻഷന്റെ ശരിയാക്കണെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം പിന്നെ പഴയ പെൻഷന്റെ ഇത് കിട്ടിയിരുന്ന സ്ലിപ്പ് ഇല്ലെ കയ്യിൽ ആ അ അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോരു പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും വേണൊ പറമ്പിൽ പണി എടുപ്പിക്കാനാവും അല്ലെ ആ പറമ്പിൽ പണിയെടുപ്പിക്കാൻ ഈ നമ്മുടെ നികുതി ശീട്ട് പുതിയ നികുതി ശീട്ട് വേണം അതിന് ആ അപ്പം നിങ്ങൾ വരുമ്പം ആ ആദ്യം നികുതി അടച്ചിരുന്ന നികുതി ശീറ്റുണ്ടല്ലോ ആ അത് കൊണ്ടു വരിക ആ ദെ നമുക്ക് പുതിയ നികുതി ശീട്ടക്കട അടച്ചിട്ട് പുതിയ നികുതി ശീട്ടും പിന്നെ തൊഴിൽ കാർഡുണ്ടല്ലൊ കൈയ്യില് ആ അ അതും വേണം അതിന്റെ ഒക്കെ ഓരോ ഓരോ കോപ്പി എട്ത്തിട്ട് ഈ തൊഴിലുറപ്പ് പണി എടുപ്പിക്കുന്നവരെ ഏ ഡി എസ് ഉണ്ടാവും ആ അവരെ കൈയിൽ കൊണ്ടു പോയി കൊടുത്താൽ മതി ബാക്കി ഒക്കെ അ ഇല്ല അതൊക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ പത്ത് രൂപ ഒരു ഏതായാലും നിങ്ങൾ വരുമ്പോൾ ഒരു അമ്പത് അമ്പത് റുപ്പ്യ കയ്യിൽ വെച്ചോണ്ട് ആ എന്നാൽ ഇനി ഇപ്പോൾ ഇനി ഇപ്പം എന്തെങ്കിലും ഒരു ഇത് നമുക്ക് പറയാൻ പറ്റൂല അത് പെൻഷൻ പൈസ ഇപ്പം കുടിശികയുള്ളവർക്ക് തരും എന്നല്ലെ പറയുന്നത് ആ അപ്പം ഒക്കെ ശരിയാക്കി കൊടുക്കുക ഇനി ഇപ്പോൾ നമ്മളെ ഭാഗം ക്ലിയറാക്കി കൊടുത്താലെ അത് സമയവാകുമ്പോൾ പൈസ പെൻഷനക്കെ വന്നോളും പൈസ കുടിശിക ഉള്ളതൊക്കെ തീർത്ത് കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഓരോ ഓരോ തീരുമാനങ്ങൾ അ ആ അത് കിട്ടു കി ട്ടും